കുതിര സവാരി ആരംഭിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്നു വച്ചാൽ പിന്നെ പേഷ്യൻസ് ഉണ്ടാവണം അതുപോലെ പേടി മാറ്റി വയ്ക്കണം നമ്മളിപ്പോൾ കുതിരപ്പുറത്തു പോവുമ്പോൾ ഒരുപ്രാവശ്യം ഒരുപാടു പ്രാവശ്യം വീഴേണ്ടി വരും അതുപോലെത്തന്നെ പിന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഓരോ ഇപ്പോൾ ഓരോ കുതിരകൾക്കും ഓരോ സ്വഭാവമാണ് ചിലത് നന്നായിട്ട് ദേഷ്യപ്പെട്ട് പിന്നെ നമ്മളെ എടുത്ത് താഴെയിടും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഓരോ ഓരോ കുതിരയ്ക്കും ഓരോ രീതിയാണ് അപ്പോൾ ഓരോ കുതിരേനെക്കുറിച്ചും നമ്മൾ ഫസ്റ്റ് പഠിക്കണം ഓരോ കുതിര എങ്ങനെയാണ് അതിൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റൊരു പോക്ക് എങ്ങനെയാണ് എന്ന് ആദ്യം പഠിച്ചതിനു ശേഷം കുതിര സവാരി പഠിക്കാൻ പോവുക അതുപോലെ നല്ല പേഷ്യൻസോടുകൂടി പഠിക്കുക പേടി മാറ്റിവയ്ക്കണം പിന്നെ എനിക്ക് പഠിച്ചേ പറ്റൂ എന്നുള്ള കോൺഫിഡൻസ് വേണം അത് എല്ലാ ജോലിക്കും അങ്ങനെതന്നെയാണ് ഏതൊരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾക്ക് വിജയം കൈവരിക്കാം അതുകൊണ്ടുതന്നെ പേഷ്യൻസും അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആ ആൾ ആൾ ആളുടെ മുഖേന പഠിക്കാൻ ശ്രമിക്കുക